ഹലോ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ആ പതിനാറാം തിയതി മറ്റന്നാളത്തേക്ക് വേണ്ടി അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് അത് ഒന്ന് അത് ഞാൻ അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ക്യാൻസൽ ആക്കേണ്ടി വന്നേ ആ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ അമ്മേൻ്റെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാണ്ടായി അപ്പം പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണേ അപ്പം ജസ്റ്റ് ഒന്ന് പിന്നെ അത് കൊണ്ട് വീട്ടിൽ അങ്ങനെ ആരും ഉണ്ടാകില്ല അപ്പോൾ ചെറിയ കുട്ടികളും ഉണ്ട് അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി നിൽക്കണം അപ്പം അതുകഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ കോയമ്പത്തൂരിലേക്ക് അതെ അതെ അതെ അപ്പോൾ അതൊന്ന് ക്യാൻസൽ ചെയ്യുമോ അപ്പോൾ പിന്നെ ഞാൻ അഡ്വാൻസ് ഞാൻ ഒരു മുവായിരം രൂപ പേ ചെയ്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് തിരികെ ഒന്ന് പിന്നെ അയച്ചു തരുമോ ആ ഓക്കെ ഓക്കെ ഞാൻ ഒരു ഹായ് ഇടാം ഓക്കെ ഗൂഗിൾ പേയിൽ ഹായ് ഇടാം